ഞാന് ഒരു രണ്ടുമൂന്ന് തവണ പത്ത് കിലോമീറ്റർ മാരത്തണില് പങ്കെടുത്തിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പെന്നു പറഞ്ഞാല് എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ച് മണിക്കെണീറ്റ് അതിന് വേണ്ടിയിട്ടൊരു വർക്കൗട്ടൊക്കെ ചെയ്ത് ദിവസം ഒരഞ്ച് കിലോമീറ്ററെങ്കിലും സ്ഥിരമായിട്ട് ഓടാറുണ്ടായിരുന്നു അല്ലെങ്കിലഞ്ച് കിലോമീറ്ററോ അല്ലെങ്കില് ചില ദിവസങ്ങളില് ഇപ്പോള് മത്സരത്തിന് അടുപ്പിച്ച് ഒരാഴ്ച മുൻപ് ഒന്ന് രണ്ട് ദിവസങ്ങളില് പത്ത് കിലോമീറ്റര് തന്നെ ഓടും ഞാന് പങ്കെടുക്കുന്ന ഒരൈറ്റം പത്ത് കിലോമീറ്റര് ആണ് ഒരു തവണ ഇരുപത്തിയൊന്ന് കിലോമീറ്ററിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഈ പത്ത് കിലോമീറ്ററാണ് മെയ്നായിട്ട് പങ്കെടുക്കുന്നൊരു ഐറ്റം കൂടുതലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും പിന്നെ രാവിലെ ഓടുന്ന സമയത്തൊക്കെ അഞ്ച് കിലോമീറ്ററാണ് കൂടുതല് ഇത് ചെയ്യല് പിന്നെ അത് കഴിഞ്ഞേന്റെ ശേഷം പിന്നെ നമ്മുടെ ട്രെയ്നിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കൗട്ടുണ്ടായീന് എസ്റ്റാഡ് ജംപ് പിന്നേ പുള്ളപ്പ് പുഷപ്പ് പിന്നെ നമ്മളെ വയറ് കുറയാൻ വേണ്ടിയിട്ട് ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങള് ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്യുമ്പോള് കൂടുതല് കരുത്തോടെ ഓടാൻ കഴിയുന്നതായി തോന്നലുണ്ട് ആദ്യത്തെ അനുഭവം നല്ലൊരു എസ്പീരിയൻസായിരുന്നു ഒര് പത്ത് നാന്നൂറോളം ആളുകള് ഈ മാരത്തണില് ഞാൻ പങ്കെടുത്ത മരത്തണിലൊക്കെ ഏകദേശം ഒരു നാന്നൂറ് അഞ്ഞൂറ് ആളുകളോളം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലിങ്ങനെ നല്ലൊരു എസ്പീരിയൻസായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല പ്രായമായ ആളുകളും കുട്ടികളും എല്ലാവരുംകൂടെ കൂടുമ്പോള് ഒരു പ്രത്യേക എസ്പീരിയൻസ്സ് തന്നെ